ഹലോ

അതെ അതെ അതെ അല്ലോ അതെയോ ആ

ആ ആ ആ ആ ആ ടിസി വേണം ആ ടിസി വേണം പിന്നെ എൽ കെ ജി യിൽ ഇതുണ്ടെങ്കിൽ വേണ്ട അത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ചേർക്കുന്നത് തന്നെയല്ലേ അതുകൊണ്ട് എൽ കെ ജിയിൽ വേണ്ട മറ്റേത് ടിസി വേണം നമ്മൾക്ക് ആ ആ അതും വേണ്ടി വരും എല്ലാം വേണം ഉം ആ ആ ആ ആ ഫോട്ടോ കൊണ്ടുവരണം ആധാർ കാർഡ് അങ്ങനെയുള്ള ഇപ്പം എല്ലാം വേണമല്ലോ ആ അധാർകാർഡും വേണം ആ ആ മക്കളേയും കൂട്ടി വന്നെങ്കിൽ നല്ലത് അടുത്ത തിങ്കളാഴ്ചയോ മറ്റോ വരുന്നുണ്ടെങ്കിൽ ആ ആ തിങ്കളാഴ്ചയാണെങ്കിൽ നല്ലതല്ലേ ആ അപ്പോൾ ആ തിങ്കളാഴ്ച ആ ആ

ആ ആ ആ ബസ് സ്കൂൾ ബസുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ അത് ഇതാക്കണമെങ്കിൽ ഇതാക്കാം ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോ അടുത്തെല്ലാം കിട്ടിയെങ്കിൽ ഓട്ടോ പിന്നെ അങ്ങനെ എല്ലാമുണ്ടാവണമല്ലോ ഓട്ടോ വിടാം ആ ഓട്ടോ ഒക്കെ ഉണ്ടാകുന്നു ആ ആ ആ ഉണ്ടാവും ആ ഞാൻ ഒന്നു ചോദിച്ചിട്ട് അവരോട് പറയാം അങ്ങനെ ആ ആ ആ

ആ ആ നോക്കാം നമ്മൾക്ക് നമ്മൾ പറഞ്ഞ് നോക്കാം

ഓട്ടോ ആ ആ ആ ആ ആ ആ ഓ ഓക്കേ ആ